നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തുറന്ന പാത്രങ്ങളിൽ പാകം ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരായിരിക്കും പ്രത്യേകിച്ചു കേരളീയർ പിന്നെ കുക്കറ് പ്രഷർ കുക്കർ ഉപയോഗിച്ചു പാകം ചെയ്യുന്നവരെന്ന് വച്ചാൽ സമയപരിധി മൂലമായിരിക്കും ജോലി ചെയ്യുന്നവർ ഉണ്ടാവും അതിൻ്റേതായ ഇപ്പോൾ കുക്കിംഗ ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് അത് കുറച്ചു കൂടി ഈസിയായിട്ട് കേരി ചെയ്യാൻ പറ്റുന്നത് പ്രെഷർ കുക്കറൊക്കെ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തുറന്ന പാത്രത്തിൽ പാകം ചെയ്യുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി ശുചിയും ഭക്ഷണം പാകം ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഇപ്പോൾ അതിനകത്ത് ഒരു എണ്ണത്തിൽ ഒരു പാളിച്ച പറ്റിയാൽ ഒരു എരിവ് കൂടിയാൽ ഉപ്പ് കൂടിയാൽ പുളി കൂടിയാൽ അപ്പം അവിടെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് അത്രയും നമ്മൾ കഷ്ടപ്പെട്ട ആ ആ ഒരു പാചകത്തിൻ്റെ ആ ഒരു കൂട്ട് അവിടെ നശിക്കും പിന്നെ രുചി നമ്മൾ നല്ല രീതിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനൊരു രുചി വരികയുള്ളൂ അതൊന്ന് കരിഞ്ഞാൽ പുകഞ്ഞാൽ അയിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും എത്രയൊക്കെ ചേരുവ ചേർന്നെന്ന് പറഞ്ഞാലും കറി അതിൻ്റെതായ കറി ആയാലും ചോറായാലും എന്തായാലും എന്ത് കുക്കിങ് പാചകം ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് നല്ല രീതിക്ക് എന്നാലേ അതിൻ്റെതായ രീതിക്ക് കിട്ടുകയുള്ളൂ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രഷർ കുക്കർ ഉപയോഗിച്ചു പാകം ചെയ്യുന്നത് പിന്നെ ടൈമ് അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്കും പ്രഷർ കുക്കർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ എന്താണ് പറയുക പാചകം എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടുക്കളയിൽ സ്പെൻഡ ചെയ്യാനൊക്കെയാണ് നമുക്ക് അത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക രുചിയും കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടത്തോടെ കൊടുക്കുമ്പോൾ അവർക്കും അതൊരു സംതൃപ്തി ആയിരിക്കും പിന്നെ പ്രഷർ കുക്കറ് ഉപയോഗിച്ചു പാകം ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലയ താല്പര്യമില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല മറ്റുള്ളവരെ കാര്യം എങ്ങനെ എനിക്ക് അറിഞ്ഞു കൂട പിന്നെ സമയം വൈകുന്നതു മൂലം എന്തെങ്കിലും ഒരു ഇതിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ചാലേ ഉള്ളു അല്ലാതെ പ്രഷർ കുക്കർ ഉപയോഗിച്ചു പാചകം ചെയ്യാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ഭക്ഷണമൊക്കെ പുതിയ പുതിയ രീതിയിലുള്ള സ്റ്റൈലിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് മോശം അഭിപ്രായമാണെങ്കിലും അതിനനുസരിച്ച രീതിക്ക് പിന്നെ ഞാൻ അത് രണ്ടാമത് ചെയ്യുമ്പം അത് അതിൻ്റെ തെറ്റും കാര്യം മനസ്സിലാക്കി കുറച്ചു കൂടി ബെറ്ററാക്കാൻ നോക്കും പിന്നെ ഭക്ഷണത്തിലെ രുചി എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഇത് അനുസരിച്ചിരിക്കും ഓരോ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണ് ഇത്ര എരിവ് ഇത്ര പുളി ഇത്ര അളവിൽ മധുരം എരിവായിക്കോട്ടെ പുളിയായിക്കോട്ടെ മധുരമായിക്കോട്ടെ ഉപ്പായിക്കോട്ടെ ഓരോന്നിനും അതിൻ്റേതായ ഇതുണ്ടല്ലോ അപ്പോൾ മറ്റുള്ളവരെ വച്ചു നോക്കുമ്പോൾ എന്താണ് പറയുക ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അപ്പം നമുക്ക് അങ്ങനെ ആയിരിക്കും എനിക്ക് ഇപ്പോൾ ഞൻ എൻ്റെ വീട്ടിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇച്ചിരി എരിവും പുളിയുമൊക്കെയുള്ള ഭക്ഷണം എനിക്ക് വേണം എന്നു വച്ചാൽ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ടാവും അപ്പം അതിന് അനുസരിച്ചു പാകം ചെയ്തു വരുമ്പോൾ അതിൻ്റേതായ രുചിയും രീതിയും ഒക്കെ മാറും ഇപ്പോൾ എൻ്റെ അമ്മ കുക്ക ചെയ്യുന്ന സ്റ്റൈലിൽ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതുപോലെ എൻ്റെ വീട്ടിൽ വേറെ ആൾക്കാരും ചെയ്യുന്നത് എല്ലാവർക്കും അവരവരുടേതായ ഒരു ടേസ്റ്റ് കുക്കിങ്ങിൽ ഉണ്ട്